ഹലോ ആ ഹലോ ഇത് ഞാൻ ശിവാനി ആണ് ഞാന് ക്യാനഡേന്നാട്ടോ വരുന്നത് ആ എനിക്ക് ഒരു എനിക്ക് ഇവിടെ ഫുൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ട് എനിക്ക് അത് ഒര് സ്റ്റേ ചെയ്യാൻ ഒരു റിസോർട്ട് എങ്ങാനും എനിക്ക് സംഘടിപ്പിച്ച് തരാൻ പറ്റുമൊ

അവിടുത്തെ ആംബിയൻസ് ഒക്കെ നല്ലത് അല്ലേ ഓക്കെ ആ ഫുഡ്ഡ് ഒക്കെയോ അപ്പം ഫുഡിൻ്റെ ആ ഓക്കെ

ഓക്കെ ഞാൻ ഒരു സിക്സ് ടു സെവൻ ഡേയ്സ് ഉണ്ടാകും ആയിരിക്കും അവിടെ അപ്പോൾ എനിക്ക് എന്നെ ഒന്ന് പിക്ക് ചെയ്യാനോ അപ്പോൾ എനിക്ക് വേണമായിരുന്നു ഓക്കെ ഓക്കെ ചിലപ്പം ഞാന് ഫാമിലി ആയിട്ട് ആയിരിക്കും വരുന്നത് അപ്പോൾ അതിന് ഉള്ള സൗകര്യങ്ങൾ ഒക്കെ ഉണ്ടല്ലോ അല്ലേ അച്ഛൻ അമ്മ പിന്നെ കുറച്ച് സിബ്ലിങ്ങ്സും ഞങ്ങൾ ഒര് പത്ത് പതിനൊന്ന് പേര് ഉണ്ടാകും ആയിരിക്കും ഞങ്ങള്

ആ ഞാന് ഡേറ്റ് പിന്നീട് അറിയിക്കാം എനിക്ക് ഇവിടെ ടിക്കറ്റ് ഓക്കെ ആയിട്ട് ഇല്ല അപ്പോൾ ഡേറ്റ് ഞാൻ പിന്നീട് വിളിച്ചാൽ പോരേ ഞാൻ അറിയിച്ചേക്കാം ആ ഈ മന്ത് ലാസ്റ്റ് വരത്തുണ്ടാകുവുള്ളു ടിക്കറ്റ് ആകുന്നതെ ഉള്ളൂ അപ്പം അത് അനുസരിച്ച് ഒരു

ഓക്കെ

ആ താങ്ക്യൂ ആ മതി മതി ഓക്കെ ആ ഓക്കെ താങ്ക്യൂ